ഹലോ ഹോട്ടൽ വസന്ത് വിഹാർ അതെ ആ ആ

ആ ആ അതെ അല്ലേ ആ അതെ നല്ലത് നല്ലത് നല്ലത് തിരക്ക് തിരക്ക് തന്നെ തിരക്ക് പിന്നെ ഇവിടെ എപ്പോഴും ഫുൾടൈം തിരക്ക് നല്ല ഫുഡ് ആയതുകൊണ്ട് നല്ല ഫുൾടൈം തിരക്ക് തന്നെയാണ് നിങ്ങളത് നോക്കേണ്ട നിങ്ങൾ വന്നോളൂ നിങ്ങൾക്ക് നിങ്ങൾ എത്ര ആളാണ് ഉള്ളത് പത്ത് ആൾ വരൂ ആ അതു ഞങ്ങൾ അതാക്കി ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ആക്കാം പിന്നെ എസി റൂം നിങ്ങൾക്കിതാക്കി വയ്ക്കാം നിങ്ങൾ പത്ത് ആളല്ലേ ആ അതായത് ആറ് ആളെ ഒരു നാല് ആൾ ഒരു ടേബിളും രണ്ടു ടേബിൾ മതിയല്ലോ ആ ആ ആ മസാലദോശയിലേക്ക് മസാല പിന്നെ അച്ചാർ ചട്ണി തരും ആദ്യമുള്ളത് മസാലദോശ വേറെ ഐറ്റംസ് ഉണ്ട് വേറെ പൂരി ബാജി ഉണ്ട് പഴംപൊരി ഉണ്ട് കുറേ ഉണ്ട് അതൊക്കെ ആക്കി തരാം

ഓ അതെയോ ആഹാ നമ്മൾ മൈനസ് ചെയ്യാൻ പറ്റില്ല നമ്മൾക്ക് നമ്മൾ മസാലദോശ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിന് ഏറ്റവും വലിയ മസാലദോശയുടെ റെക്കോർഡ് ആണ് നമുക്ക് കിട്ടിന് അതു കൊണ്ട് മസാലദോശ ആ അതെ അല്ലേ അല്ല നിങ്ങൾ അങ്ങു തെക്കു നിന്നു നല്ലാൾ വരും തെക്കു നിന്നു നല്ലാൾ വരുന്നു ഇങ്ങോട്ട് തെക്കു നിന്നുള്ള നല്ല ആൾക്കാർ വരുന്നിപ്പോൾ ആ നിങ്ങൾ നിങ്ങൾ കാസർ പുതിയ ബസ് സ്റ്റാൻഡ് ഉണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് ഓ പറയൂ നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ നിന്ന് നേരെ ആ പുതിയ ബസ് സ്റ്റാൻഡ് വരുന്ന വഴിക്ക് വലത്തേ സൈഡ് കിട്ടും മറ്റേ ഇത് നമ്മളെ സുൽത്താൻ ഗോൾഡ് ജ്വല്ലറി ഉണ്ട് അതിൻ്റെ അതിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ അടുത്ത് നിന്നാണ് വരുന്നത് അപ്പോൾ അത് നിങ്ങൾ അവിടെ ഒരു ഓട്ടോയിൽ കയറി ഓരോട് പറഞ്ഞാൽ മതി ആ ഓട്ടോയിൽ കയറിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ വസന്ത് വിഹാർ എല്ലാവർക്കും അറിയും നിങ്ങൾ ഓരോട് പറഞ്ഞാൽ ഒരെന്നെ കൊണ്ടാക്കും ഇല്ല അല്ല നമ്മൾ പത്തു പതിനഞ്ച് ആളുണ്ട് സാറേ നമ്മൾക്ക് മസാലദോശ ചുടാൻ പതിനഞ്ച് ആളുണ്ട് ഇത് സ്പെഷ്യൽ മസാലദോശ തന്നെ ആക്കാം ഓക്കെ ശരി ശരി ശരി